ഒപ്പഹാം റെസ്റ്റോറൻ്റല്ലെ ആ ഒരു നെയ്ച്ചോറ് ഇത് സുലൈഖയാണ്

നെയ്ച്ചോറും കറിക്കാണ് ചിക്കൻക്കറിക്കുവാണ്

ആ നെയ്ച്ചോറും ചിക്കൻക്കറിയും ഇങ്ങോട്ടെത്തിച്ചു തരുമോ ഡെലിവെറിയായിട്ടു രാമനാട്ടുക്കര ആ ടൗണിലെത്തീട്ടു വിളിച്ചാൽ മതി ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി

ഈ ഇല്ല വീട്ടിൽതന്നെയാണ് ആ ടൗണിനു ലേശമങ്ങട്ട് പോയാൽ മതി വീട് ഏ ടൗണോക്കെയെത്തീട്ട് എത്തീട്ടു വിളിച്ചാല് മതി അതെ ആ ആ ശരി ശരി അവിടെ അവിടെത്തുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി നെയ്ച്ചോറ് എങ്ങനെയാ റേറ്റങ്ങനെയാണ് അരക്ക് നൂറ്റിയായിൻപതു റുപ്പ്യ ആ ശരി ആ എന്നാൽ ആയിക്കോട്ടെ ആ ശരി അതായിക്കോട്ടെ ഒരു കിലോന്ന് ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ ശരി ഇപ്പോൾ നെയ്ച്ചോറും ചിക്കൻക്കറിയും

നെയ്ച്ചോറും ചിക്കൻകറിയും മതി രാമനാട്ടുകര ടൗണിലെത്തുമ്പോൾ വിളിച്ചാൽമതി നമ്മുടെ വീട് അവിടെത്തനെയാണ് കുറച്ച് കുറച്ച് പോയാൽ മതി ആ ശരി ആ ആ ശരി